നമ്മള്ക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ എന്ന് പറയാൻ വലിയ ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം നമ്മള്ക്ക് ഒരു ബസ് കയറിയിപ്പോള് കെ എസ് ആർ ടി സി സർവീസ് ഏതു നിമിഷവും അവൈലബളാണ് എന്തോ ഹർത്താൽ അങ്ങനെയുള്ള പരുപാടികൾക്ക് മാത്രമാണ് കെ എസ് ആർ ടി സി അവൈലബിള് അല്ലാതെ അതുപോലെതന്നെ ഇപ്പോള് എല്ലാ വീട്ടിലും ഒരു വാഹനമുണ്ട് അപ്പോള് നമ്മള്ക്ക് എത്താൻ ഒരു കാരണവശാലും ബുദ്ധിമുട്ടപ്പെടുന്നതല്ല പിന്നെ അവിടുത്തെ സൗകര്യങ്ങളും നമ്മള്ക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ മുന്നോട്ടുപോവുന്നത് തന്നെയാണ് പക്ഷേ ഒരുപാട് ആൾക്കാര് വരുമ്പോൾ ഒരുപാട് ഡോക്ടേഴ്സ് ഇല്ലാത്ത ഒരു ഇതു നമ്മള്ക്ക് നേരിടണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ഡോക്ടേഴ്സ് ഇല്ലാത്ത അത് ഒരു മെയിൻ റീസണാണ് ഒരുപാട് ഡോക്ടേഴ്സ് ഇല്ല നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോള് ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മള്ക്ക് വരുന്നവർക്ക് ഒരുപാട് പെട്ടെന്നുതന്നെ അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു വീട്ടിലെത്താം അപ്പോള് ഒരുപാട് ഡോക്ടേഴ്സ് കൌണ്ടേഴ്സ് അങ്ങനെ ആളുകളുടെ എണ്ണം വർധിപ്പിക്കണം എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഒരുപാട് പഠിച്ചു പഠിച്ചു വരുന്ന ഒരുപാട് ഡോക്ടേഴ്സ് വേണം അപ്പോള് ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് രോഗികൾക്ക് കാത്തുനിൽക്കേണ്ടിവരില്ല കാത്തുനിൽക്കുന്നവര് കാത്തുനിക്കേണ്ടി വരുന്നേണ് ഒരു വലിയ ഒരു ഇപ്പോള് വയ്യാതേക്ക വരമ്പം കാത്തുനില്ക്കേണ്ടി വരുന്ന ഒരു വലിയ ഒരു വലിയ കാര്യം തന്നെയാണതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോള് നമ്മൾ നേരിടുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് കാത്തുനില്ക്കേണ്ടി വരും അതുതന്നെയാണ് ഒരു ബുദ്ധിമുട്ട്